ഹലോ പാൻ കാഡിൻറ്റെ ഓഫീസല്ലേ ഞാൻ പാൻ കാർഡിന് അപ്ലൈ ചെയ്തിരുന്നു കേട്ടോ എനിക്ക് പുറത്തോട്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പതിൻ്റെ കറൻ്റ് സ്റ്റാറ്റസ് എന്തായി എന്നൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഇതിൻ തിരിച്ചറിയൽ കാഡിൻ്റെ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് ആറ് നാല് നാല് മൂന്ന് പൂജ്യം ജനന തീയ്യതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ മുപ്പത് ഒന്ന് ഇതിൻ്റെ കറണ്ട് പാൻ കാർഡ് ഡെസ്പാച്ച് ആയോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ